ഹലോ ഹലോ സാറേ സാറേ എൻ്റെ പേര് ജോയൽ തോമസ് എന്നാണ് സാറേ എനിക്ക് വീട്ടിൽ ഒരു ഫങ്ക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു ചെറിയ ഒരു കാപ്പി പരിപാടി അറേഞ്ച് ചെയ്യണം എന്നുണ്ട് അപ്പം സാറേ നമ്മുടെ ഷോപ്പിൽ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് ഉള്ളത് ടീയും കോഫീസും ആണുള്ളത് ആ ജോയലാണ് ആ സാറേ ആ ഓക്കെ ഓക്കെ ഓക്കെ സാറേ ഞാൻ ഇപ്പം ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എനിക്ക് കുഴപ്പമില്ല സാറേ എനിക്ക് ചായയും ഏത്തക്ക അപ്പവും അങ്ങനെ മതി ചായയും ഏത്തക്ക അപ്പവും മതി അതാവുമ്പം നമുക്ക് ഓക്കെ ആണ് പക്ഷെ സാറേ അത് പറഞ്ഞല്ലോ ബൂസ്റ്റർ ചായ ആ അത് തന്നെ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് സാറെ ബൂസ്റ്റർ ചായയുടെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ആ ട്വൻറ്റി റുപ്പീസ് ആ കുഴപ്പം ഇല്ല ഇരുപത് രൂപയ്ക്ക് ആണെങ്കിൽ എനിക്ക് ബൂസ്റ്റർ ചായ ഓക്കെയാണ് സാറെ അപ്പം എനിക്ക് ഹോം ഡെലിവറി ആയിട്ട് എനിക്ക് വേണമായിരുന്നു ആ ഇത് ആ ഓക്കെ ശെരി സാറെ അന്ന് ആ എനിക്ക് ഹോം ഡെലിവറി തന്നെ എനിക്ക് അപ്പം ഒരു അമ്പത് ചായ അമ്പത് ബൂസ്റ്റർ ചായയും പിന്നെ ഒരു അമ്പത് ഏത്തയ്ക്ക അപ്പത്തിന് എത്രയാണ് സാറെ റേറ്റ് വരുന്നത്

സാറെ നോർമൽ നോർമലായിട്ടുള്ള ഏത്തയ്ക്ക അപ്പം മതി നോർമലായിട്ടുള്ള ഏത്തയ്ക്ക അപ്പം ആ അ ആ ഓക്കെ സാറെ അപ്പം എനിക്ക് ഒരു ആ അമ്പത് ഏത്തയ്ക്ക അപ്പവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അമ്പത് ബൂസ്റ്റർ ചായയും വേണം ആ അപ്പം അത് എനിക്ക് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് നാളെ തിങ്കളാഴ്ച എനിക്ക് അതിൻ്റെ ഞാൻ എൻ്റെ വീടിൻ്റെ സാറേ അഡ്രസ്സ് അഡ്രസ്സ് സാറെ ഇത് വരുന്നത് ഞാൻ അത് ലൊക്കേഷൻ കൃത്യമായിട്ട് ഞാൻ പറയാം ഇത് കോലത്ത് ജെട്ടി ആണ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് അപ്പം കോലത്ത് ജെട്ടിയിൽ ഇത് ഞാൻ എൻ്റെ വീട്ട് പേരെന്ന് പറഞ്ഞാൽ മനവേലിയാണ് മനവേലി അവിടെ ഇവിടെ വന്നു കഴിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ആരോടാണെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം മനവേലി എന്നാണ് വീട്ടു പേര് അപ്പം കോലത്ത് ജെട്ടിയാണ് ഇത് വരുന്നത് കോലത്ത് കൈനേരി കോലത്ത് ജെട്ടി കോലത്ത് ജെട്ടി അപ്പം ഇവിടെ വന്നാൽ മതി മനവേലി കുട്ടമംഗലം പി ഓ കൈനഗിരി കോലത്ത് ജെട്ടി കോലത്ത് ജെട്ടിയാണ് ലാൻഡ്മാർക്ക് വരുന്നത് കേട്ടോ സാറെ ആ കുഴപ്പമില്ല സാറേ ഞാൻ അത് വരുമ്പം ആ ഞാൻ ആ ഓക്കെ സാറെ ഞാൻ ഈ നമ്പറിലോട്ട് ക്യാഷ് ആ ഇട്ട് തന്നോളാം സാറിന് ഓ ബാക്കി ആ ഓക്കെ ശരി സാറെ നന്ദി വലിയ ഉപകാരം